കാളവണ്ടി ഓട്ടം കണ്ടിട്ടുണ്ട് കാളവണ്ടി ഓട്ടം കാണാൻ വേണ്ടിയിട്ടൊക്കെ പണ്ട് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ആഘോഷമായിരുന്നു കാളവണ്ടി ഓട്ടം എന്ന് പറയുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ പോയിട്ടുണ്ട് വീട്ടുകാരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കാളകൾ ഒരുപാട് കാളയെ ഇങ്ങനെ നിരത്തിയ വണ്ടികളില് ആൾക്കാരൊക്കെ കേറി ഒരേ ആഘോഷത്തോടെയാണ് കാളകളുടെ ഓട്ടം ഒക്കെ കാണണം കാളകളെയൊക്കെ കാണാൻ തന്നെ ഭംഗിയാണ് അതിൻ്റെ ഈ കഴുത്തിലെ മണിയൊക്കെ കെട്ടി കൊടുത്ത് ഇത്ര ദൂരം അതിനെ ഓടിക്കും അതായത് ഒരു ഭാഗത്ത് മൃഗങ്ങളെ കൊണ്ട് എന്താണ് നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കുക ആണെന്നുണ്ടെങ്കിൽ മറു ഭാഗത്ത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കോഴിപ്പോര് കോഴിപ്പോര് കണ്ടിട്ടുണ്ട് അത് നല്ല രസമാണ് കൊത്തുകോഴികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നടത്തുന്ന ഒരു മത്സരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിലുള്ള ആഘോഷം ആണ് ഒരു ഭാഗത്ത് നമ്മൾ അവരെ എന്താണ് ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നുമല്ലെങ്കിലും അതിന് നമ്മൾ ഒരുപാട് പരിശീലനം ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക കാളവണ്ടി കാളയ്ക്കായാണെങ്കിലും ആടാണെങ്കിലും കോഴിയാണ് ആടിൻ്റെ പോര് ആട് പോര് കണ്ടിട്ടില്ല കോഴിപ്പോര് കണ്ടിട്ടുണ്ട് അതൊക്കെ എന്താണ് നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നടത്താറുണ്ട് നമ്മള് നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരെ നമ്മള് ഉപദ്രവിക്കാത്ത രീതിയിലാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ നമ്മൾ അത്രയും പരിശീലനം കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇവരെ അതിലേയ്ക്ക് എന്ത് ചെയ്യുക ഇറക്കി തിരിക്കുക